ഞാൻ ചെയ്ത ചിത്രങ്ങളെ എഡിറ്റ് ചെയ്യാനുപയോഗിക്കുന്ന ആപ്പുകൾ പിക്സ്ആർട്ട് വി എൻ എഡിറ്റർ ഇൻഷോട്ട് മുതലായ ആപ്പുകളാണ് ഞാൻ കൂടുതലായിട്ടും ചിത്രങ്ങളെ എഡിറ്റ് ചെയ്യാനുപയോഗിക്കുന്നത് ഈ ആപ്പുകളിലൂടെ ചിത്രങ്ങൾ ഈസിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളോ നമുക്ക് പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആപ്പുകൾ നമുക്ക് സഹായകമാണ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതായത് ഇൻ ഷോർട്ടൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധം നമുക്ക് ഈ ആപ്പുകൾ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനും ആ ഓഡിയോ കട്ട് ചെയ്യാനും വീഡിയോസ് കട്ട് ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായകമായ ആപ്പുകളാണ് ഈ പിക്സാർട്ട് വി എൻ എഡിറ്റർ ഇൻഷോട്ട് മുതലായ ആപ്പുകൾ കൂടാതെ ഈ നമ്മൾ ഇപ്പം ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെന്തിനാണെന്നു ചോദിച്ചാൽ ചിത്രങ്ങൾ കൂടുതലായിട്ടും അതിനുള്ള പോരായ്മകൾ പരിഹരിക്കുക എന്നതാണ് നമ്മുടെ ചിത്രങ്ങളെ എഡിറ്റ് ചെയ്യുക എന്നതു കൊണ്ടുള്ള ഉദ്ദേശം എന്നത് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് എന്നതിലൂടെ അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് ഉള്ള പോരായ്മകൾ നമുക്ക് പരിഹരിച്ച് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാനൊക്കെ ഈ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും നമ്മുടെ ഒരു ചിത്രം ത്തിന് കുറച്ച് വെട്ടം കുറവാണ് വെളിച്ചം കുറവാണെങ്കിൽ പോലും നമുക്ക് എഡിറ്റ് ചിത്രം എഡിറ്റ് ചെയ്യുന്നതിലൂടെ അതിനു വെളിച്ചം വരുത്താനും അല്ലെങ്കിൽ അതിൻ്റെ നിറം വ വർദ്ധിപ്പിക്കുവാനും അതിനെ മനോഹരമാക്കാനും സാധിക്കുന്നെന്ന് ഈ എഡിറ്റിങ്ങ് ആപ്പുകൾ മുതലായവ കൊണ്ട് എഡിറ്റിംഗ് തുടങ്ങിയ ആപ്പുകൾ ൾ കളിലൂടെ ചിത്രങ്ങൾ അതായത് അതിനെ കട്ട് ചെയ്യാൻ പറ്റും കോപ്പി ചെയ്യാൻ കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് അതിനെ ലെവലാക്കാൻ സാധിക്കുന്നു കൂടാതെ അതിനകത്തുള്ള അപാകതകൾ പരിഹരിക്കാൻ സാധിക്കുന്നു അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് മാറ്റി കളയാനും സാധിക്കുന്നു ഇത്തരത്തിൽ വളരെ അധികം ഫീച്ചറുകൾ അല്ലെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ഈ എഡിറ്റിങ്ങ് ആപ്പുകളിലൂടെ നമുക്കതിനകത്ത് സാധിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ സാധിക്കുന്നു കൂടാതെ അതിനു പല ഫിൽട്ടറുകൾ നൽകി അതിനെ കൂടുതൽ വ്യത്യസ്തമാക്കി ചിത്രീകരിക്കാനും അതിന് ബാക്ക് ഗ്രൗണ്ട് നൽകാനോ അല്ലെങ്കിൽ അതിനെ സ്ക്രീൻ പോലെ ഒരു സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ പലതരം ഇത് കൂട്ടിലൂടെ ചെയ്യാനോ പലതരം ഫിൽറ്ററുകൾ അല്ലെങ്കിൽ മുതലായ എന്തു കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനകത്ത് ഒരു ആവശ്യമില്ലാത്തൊരു വസ്തു അതിനകത്തുണ്ടെങ്കിൽ പോലും അതിനെ നീക്കം ചെയ്യാനുമൊക്കെ ഈ എഡിറ്റിംഗ് ആപ്പുകളിലൂടെ സാധിക്കുന്നു എന്നാണ് സത്യം എഡിറ്റിംഗ് ആപ്പുകളതു കൊണ്ടു തന്നെ വളരെ ഉപകാരപ്രദമാണ് ഒരു ഫോട്ടോ നൽ നമുക്ക് ചിലപ്പം എങ്കിൽ മനോഹരമല്ലായെന്നു തോന്നുന്ന ഫോട്ടോ പോലും എഡിറ്റിങ്ങ് ആപ്പ് മൂ മൂലം എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മനോഹരമായി തീരുന്ന അതെന്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഡിറ്റിങ്ങ് ആപ്പുകളിലൂടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സുന്ദര സുന്ദരമായി ഫോട്ടോസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഫോട്ടോ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് എത്രത്തോളം കൂടുതലായിട്ടും പഴയ ഫോട്ടോയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം അതിന് വരുത്താമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യത്യാസം വരുത്തി വരുത്തി അതിനെ ഏറ്റവും കൂടുതൽ ന നല്ല ചിത്രമാക്കി തീർക്കാൻ വേണ്ടി ഈ എഡിറ്റിങ്ങ് ആപ്പുകൾ ഉപകാരപ്രദമാകുന്നത്

എഡിറ്റിങ്ങ് ആപ്പുകളിൽ കൂടുതലായിട്ടും ഉള്ള ഒരു ക എഡിറ്റിങ്ങ് ആപ്പുകൾ കൂടുതലായിട്ടുപയോഗിക്കുന്നത് ഇത് ഇതു പോലെ തന്നെ പല തരം അതിനകത്ത് ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ ആവശ്യമില്ലാതെ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ വെളിച്ചത്ത് കെട ഇരിക്കുന്ന ആ ഒരു രീതി അതിൽ നിന്നു വസ്തുക്കളെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനോഹാരിത നൽകി കൊണ്ട് ഫിൽറ്ററുകൾ മുതലായവ യൂസ് ചെയ്യാം ഉപയോഗപ്പെടുത്തുക എന്നിവയാണ് ഈ എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതിൻ്റെ കൂടുതൽ കാരണമെന്നു പറയുന്നത് പിന്നെ എഡിറ്റിങ്ങ് എഡിറ്റിങ്ങ് ആപ്പുകളിൽ എല്ലാം കൂടുതലായിട്ടും രണ്ടും ഈ ഇൻഷോട്ട് മുതലായ ആപ്പുകളിലൊക്കെ കൂടുതലും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓഡിയോ ആക്കാനും അങ്ങനെ മുതലായ കാര്യങ്ങൾക്കും ഈ എഡിറ്റിംഗ് ആപ്പുകളുപകാരപ്രദമാണ് പിന്നെ എഡിറ്റിങ്ങ് ആപ്പ് എഡിറ്റിങ്ങ് ആപ്പുകളെ ഇങ്ങനെ എഡിറ്റിങ്ങ് ആപ്പുകളിലൂടെയാണ് ഈ ചിത്രങ്ങൾക്ക് കൂടുതൽ ഭംഗി ലഭിക്കുക എന്നു തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എഡിറ്റിങ്ങ് ആപ്പ് ഒരു പ പഴയ ചിത്രത്തിൽ നിന്ന് അതായത് നമ്മൾ കൊടുക്കുന്ന ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം നമ്മളിലേക്കല്ലെങ്കിൽ അതിൽ ആ ചിത്രത്തെ കൂടുതൽ സുന്ദരമാക്കി കൊണ്ട് ഒരു ചിത്രം നമ്മളിലേക്കെത്തിക്കാൻ വേണ്ടി ഈ എഡിറ്റിങ്ങ് ആപ്പുകളിലൂടെ സാധിക്കും